പണ്ടത്തെ കാലത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാനിപ്പോൾ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം പ്രായമൊക്കെയായി ഇനിയിപ്പോൾ ഇപ്പോൾ തൊട്ടൊന്നും നൃത്തം ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും എത്താൻ പറ്റില്ല അന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നൃത്തമൊക്കെ ഭയങ്കര നൃത്തം കളിക്കാൻ ഒക്കെ ഭയങ്കര ആഗ്രഹം ഉള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പാട്ട് അതായത് മലയാള സിനിമ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് അതായത് കളിക്കാൻ ഒക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ അന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വലിയ സാമ്പത്തികം സ്ഥിതി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് അടങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മെച്ചപ്പെട്ടു പിന്നെ വേറെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു വലിയ കുഴപ്പം ഒന്നുമില്ലാ പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല കാരണം കുട്ടികൾ മക്കളൊക്കെയായി അപ്പം നമുക്ക് ബാധ്യത കാര്യങ്ങൾ ഒക്കെയായി അപ്പോൾ നമുക്ക് ഡാൻസ് പഠിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാനിങ്ങനെ ഫോണിലൊക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കി ഇങ്ങനെ കളിക്കും കളിക്കും ഒക്കെ ചെയ്യും പിന്നെ എനിക്ക് ഇനിയുള്ള ലക്ഷ്യം എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോളാണ് ഉള്ളത് അവളെ നല്ലവണ്ണം അതായത് അവൾക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവളെ ഇപ്പോഴേ പഠിപ്പിച്ച് അതായത് മൂന്ന് നാല് അവൾക്കിപ്പോൾ രണ്ടു വയസ്സ് ആയിട്ടുള്ളൂ അപ്പോൾ മൂന്നു വയസ്സൊക്കെ ആവുമ്പോഴേക്കും തന്നെ അവൾക്ക് എന്ത് ആഗ്രഹം ഉള്ളതെന്ന് വെച്ചാൽ അത് പഠിപ്പിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ലക്ഷ്യം